ആ ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ സ്ക്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഗ്രീറ്റിങ്ങ് കാർഡ്സ് ഉണ്ടാക്കുമായിരുന്നു എനിക്ക് യൂട്യൂബ്യൊക്കെ നോക്കിയിട്ടു ഞാൻ ഒരുപാട് ക്രിസ്സ്മസ് കാർഡ്സ് അതുപോലെ ഓണത്തിന് അല്ലെങ്കിൽ ബെർത്ഡേക്കൊക്കെ ഒരുപാട് കാർഡ്സ് ഓരോ ഉള്ളിലൊക്കെ ഓരോ ഷേപ്പ് വച്ചിട്ട് പിന്നെ കത്രിക കൊണ്ട് മുറിച്ച് നല്ല ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ കത്തൊന്നും ഇതുവരെ ആയിട്ടില്ല ഞാൻ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു എനിക്ക് ലഭിച്ചിട്ടുണ്ടോയെന്നു വച്ചാൽ എനിക്ക് ഗ്രീറ്റിങ്ങ് കാർഡ്സ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീറ്റിങ്ങ് കാർഡ്സ് അല്ല പുറത്തുനിന്നു വാങ്ങിയ ഗ്രീറ്റിങ്ങ് കാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഞാൻ കൈകൊണ്ട് നിർമ്മിച്ചതെന്നു വച്ചാൽ ഞാൻ പണ്ട് ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് സെഡാക്കു കൊക്കിനെയൊക്കെ നമുക്ക് സ്ക്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതുപോലുള്ള ഞാൻ അന്ന് പഠിച്ചത് ഞാൻ ഇന്നും സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് അത് പിന്നെ അത് ഉണ്ടാക്കിയിട്ട് സ്കൂളുകളിലെ ആവശ്യത്തിനൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ സെറ്റി സോഫ സെറ്റി കടലാസ്സു പേപ്പറുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തോണി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് എനിക്ക് കൈകൊണ്ട് നിർമ്മിച്ച എല്ലാ കലയും ഇഷ്ടമാണ് എൻ്റടുത്തൊരു ബുക്കുണ്ടായിരുന്നു എങ്ങനെയാണ് ഓരോ ഓരോ രൂപങ്ങളെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ബുക്ക് അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പേപ്പറുണ്ടാക്കുന്ന കല ഭയങ്കര ഇഷ്ടമാണ്